ഞാൻ തുന്നികൊടുത്ത് തുന്നുന്ന ഒരാളാണ് തുന്നി കൊടുക്കും വീട്ടിൽ വരുന്നവർക്കൊക്കെ തുണി പിന്നെ മുറുക്കും കേക്ക് ബേക്ക് ചെയ്യും ഉണ്ണിയപ്പം ഉണ്ടാക്കി കടയിൽ കൊടുക്കും പിന്നെ കുറച്ചു കോഴികളുണ്ട് കോഴിമുട്ട വിൽക്കാറുണ്ട് ആടുണ്ട് ആട്ടുംപാൽ വാങ്ങും എൻ്റെയടുത്തു നിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ഒരു സാധാരണ ഒരു കുടുംബ കർഷകയാണ് കർഷകയാണോയെന്ന് വെച്ചാൽ ആണ് പക്ഷെ നൈറ്റി തുണിയൊക്കെ കൊണ്ട് തന്നാൽ നൈറ്റിയൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ചുരിദാർ അടിച്ചുകൊടുക്കുന്നുണ്ട് പട്ടുപാവാട അടിച്ചുകൊടുക്കുന്നുണ്ട് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് അതിൽനിന്ന് എനിക്കൊരു വരുമാനം എങ്ങനെയായാലും കിട്ടും ഒരു ഷെയ്പ്പാക്കി കൊടുത്താൽ ഒരു മുപ്പതുരൂപ ഒരുദിസം കിട്ടും പാൽ എന്നും രണ്ടുമൂന്നു വീട്ടിൽ പാൽ വാങ്ങുന്നവരുണ്ട് ആട്ടുംപാൽ ആയതു കൊണ്ട് അതിന് കുറച്ചുണ്ട് അങ്ങനെ പിന്നെ മുട്ട വേണ്ടവർ വേണ്ടവർ വീട്ടിൽ വന്ന് മുട്ട വാങ്ങും നാടൻകോഴീൻ്റെ മുട്ടയായതു കൊണ്ട് അതും വിറ്റു പോകുന്നുണ്ട് അപ്പം പിന്നെ ഉണ്ണിയപ്പമൊക്കെ പിന്നെ കടയിൽകൊണ്ടുപോകുന്ന പാക്കറ്റ് ആക്കിയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് മുറുക്കും ഉണ്ണിയപ്പവും അല്ലെങ്കിൽ കടയിലോട്ട് ഈ പിന്നെ തൂക്കി കൊടുക്കും ബേക്കറി ആൾക്കാരൊക്കെ ഓർഡർ തരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് ഞാൻ അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വരുമാനം വെച്ചാണ് എന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്